ആ ഹലോ ഡോക്ടർ അല്ലേ ആ ഡോക്ടറെ എൻ്റെ പേര് ജിതിൻ എന്നാണേ എൻ്റെ ബ്രദറിന് ഭയങ്കര നടുവേദന ഞങ്ങളിങ്ങനെ പറമ്പിൽ പണിയെടുക്കുന്ന സൈറ്റിലിങ്ങനെ നിൽക്കുമ്പോൾ അയാൾ പെട്ടെന്ന് നടുവേദന കൂടിയിട്ട് അവിടെ അങ്ങ് ഇരുന്നു ഇരുന്നിട്ട് പിന്നെ കിടന്നു എഴുന്നേൽക്കാൻ പറ്റാണ്ട് ഞങ്ങൾ പിന്നെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് കൊണ്ടു വരുകയാണ് ചെയ്തത് അപ്പോൾ ഒന്ന് കൺസൾട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ആയിരുന്നു പണിയെടുക്കുന്നില്ല ആൾ സൂപ് ഇല്ല ആൾ സൂപ്പർവൈസർ ആണേ പണിയെടുക്കുന്നില്ല ആ പെട്ടെന്ന് ആയതാണ് നടുവേദന കഴിഞ്ഞ ദിവസം അവർ തൃക്കൈപ്പറ്റ വരെ പോയപ്പം വണ്ടി ഒന്ന് മറിയാൻ പോയപ്പം ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്തിയായിരുന്നു ഓക്കെ അപ്പോൾ അന്ന് മുതലാണ് ഈ വേദന കൂടിയത് ഓൾറെഡി കുറച്ച് നടുവേദന ഉള്ള പ്രശ്നമുണ്ടായിരുന്നു ഇതിനു മുന്നേ കാണിച്ചിട്ടില്ല ഇല്ല ഇല്ല നമുക്ക് അന്ന് അത്ര പ്രശ്നമില്ലായിരുന്നു നമ്മൾ ഈ വേദന വരുമ്പം ജസ്റ്റ് ഒന്ന് കളരിയിലൊക്കെ പോയി തിരുമ്മുമായിരുന്നു അതായത് കാലു പൊക്കുവാൻ പറ്റത്തില്ല കിടന്നിട്ട് കാൽ പൊക്കുമ്പത്തേന് നമ്മൾ കിടന്ന് എക്സർസൈസ് ചെയ്യില്ലേ കാൽ പൊക്കിയൊക്കെ അങ്ങനെ പറ്റത്തില്ല നേരെ നിന്ന് കുനിയാൻ പറ്റുന്നില്ല അതായത് മുട്ടുമടക്കാതെ കുനിയാൻ ഒന്നും പറ്റുന്നില്ല

ഞാനിവിടെ അരയിടത്തുപാലം ആ ആ പറയാൻ പറ്റുള്ളൂ അല്ലേ ആ ആ ഹാ ഹാ ഡോക്ടർ ഡോക്ടർ എന്നാണ് അവൈലബിൾ ഞാൻ വരാം ഡോക്ടർ എന്നാണ് അവൈലബിൾ ഉള്ളത് ഹോസ്പിറ്റലിൽ ആ നാളെ അതായത് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച വന്നു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ഡോക്ടർ അവൈലബിൾ ആ ഓക്കെ ഓക്കെ ശരി ശരി ആ ഓക്കെ ഓക്കെ ഓക്കെ

ശരി ഓക്കെ